ഹലോ ഹലോ ഇത് മുരിക്കാശ്ശേരിയിലെ ലൈബ്രെറിയനല്ലേ ആ എനിക്ക് രണ്ട് ടെക്സ്റ്റ് എടുക്കാനായിരുന്നു അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ഇല്ലല്ലോ ആ ആ ഓക്കേ ആ മെമ്പർഷിപ്പ് ഞാനിപ്പം എടുത്തോളാം അതിൻ്റെ ഡീറ്റൈൽസ് ഒന്ന് പറയാമോ ഇരുപത് രൂപ അല്ലേ ആ ഇരുന്നൂറ് ഇരുന്നൂറ് ആ ഓക്കേ ഓക്കേ ആ ഓക്കേ ഓക്കേ ഓക്കേ അപ്പം എനിക്ക് രണ്ട് ടെക്സ്റ്റ് എടുക്കാനായിരുന്നു അതിൻ്റെ കാലാവധിയും സമയവും എനിക്കൊന്ന് പറഞ്ഞ് തരാമോ

അഞ്ച് പുസ്തകം അല്ലേ ആദ്യം എടുക്കാൻ പറ്റുവുള്ളൂ

പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അല്ലേ ആ ഓക്കേ ഓക്കേ ഓക്കേ അപ്പം ഈ മെമ്പർഷിപ്പ് എടുത്താൽ ഇതെത്ര നാളത്തേനുണ്ടാവും നമുക്ക് ഈ പുസ്തകം എത്ര നാൾ ഫണ്ട് അടക്കാണ്ട് നമുക്ക് എടുക്കാൻ പറ്റും രണ്ട് വർഷത്തേനല്ലേ അപ്പം ഫൈന് അതിന്റകത്തുനിന്ന് കട്ട് ആണോ ആ നമ്മുടെ ഇന്ന ദിവസത്തിനുള്ള ആവശ്യത്തിൻറ്റേനല്ലേ

അങ്ങനെയാണേ എനിക്കിന്നൊരു ടെക്സ്റ്റ് എടുക്കാനായിരുന്നു മറ്റേ കണ്ണശ്ശ രാമായണം അങ്ങനെ ടെസ്റ്റ് ആ ഓക്കേ ഓക്കേ ഓക്കേ വ്യക്തമായിട്ട് വായിക്കാനായിട്ട് ഉള്ള ടെക്സ്റ്റ് ഏതാ ഇപ്പോൾ ഉള്ളത് ആ ലീലാ തിലകം ഇരിപ്പുണ്ടോ ലീലാ തിലകം ആണല്ലേ

ആ ആ ഓക്കേ ഓക്കേ ഓക്കേ എന്നാൽ ഞാൻ ലീലാ തിലകം ഒരെണ്ണം പിന്നെ വേറൊരു ടെക്സ്റ്റ് ഞാൻ നോക്കിയിട്ട് നല്ലത് നോക്കി ഒരെണ്ണം എടുത്തോളാം ആ ഓക്കേ ഓക്കേ ഓക്കേ ബാക്കി ഇതിൻ്റെ സൈനും കാര്യങ്ങളും അല്ലേ ഞാനെങ്കിൽ ഇവിടെ ചോദിച്ച് അറിഞ്ഞോളാം ഫണ്ട് ഞാനിന്നുതന്നെ അടച്ചേക്കട്ടെ ആ ഓക്കേ ഓക്കേ ഓക്കേ ആ ഒന്ന് അതറിയാനായിട്ട് വിളിച്ചതായിരുന്നു ആ ഓക്കേ ഓക്കേ ഓക്കേ പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് വേറെ എന്ന് ചോദിച്ചാൽ ഈ ടെക്സ്റ്റിൻ്റെ എന്താ പറയുക എത്ര ദിവസത്തിനുള്ളിൽ ഇത് തിരിച്ചടയ്ക്കണം എന്നായിരുന്നു പറഞ്ഞിരുന്നത് പതിനഞ്ച് ദിവസം ഒരു ആ ആ ആ വേടിക്കും അല്ലേ

ആ ഓക്കേ ഓക്കേ ഓക്കേ അങ്ങനെയാണേൽ ഇന്നുതന്നെ ഞാൻ ടെസ്റ്റ് വന്ന് എടുത്തോളാം ഫണ്ട് ഒക്കെ ഞാൻ ഇന്നുതന്നെ അടച്ചോളാം ആ ഓക്കേ ഓക്കേ അഡ്മിഷൻ ഞാൻ ഇന്ന് തന്നെ എടുത്തോളാം ആ ഓക്കേ ഓക്കേ ഓക്കേ എന്നാൽ ശരി എന്നാൽ